വയനാട് ജില്ലയിലെ ജനപ്രിയ ചില പ്രാദേശിക കായികം എന്നുവച്ചാല് ഫുട്ബോളുണ്ട് ഇപ്പൊൾ ഒരുപാട് ടറ ടറഫുകളുണ്ടല്ലോ അപ്പൊൾ അവിടെ ഫുട്ബോള് പിന്നേ അതുപോലെ ക്രിക്കറ്റ് പിന്നെ ഷട്ടില് ഇതൊക്കെ കണ്ടുവരുന്നുണ്ട് ഇപ്പം സ്കൂൾ കുട്ടികളായിക്കോട്ടെ പിന്നെ അതുപോലെ സ്കൂളുകളിലും ഒരുപാട് കായിക മേഖല ജില്ലയിലും സംസ്ഥാനത്തും ഒക്കെ പങ്കെടുപ്പിക്കുന്നുണ്ടല്ലാ എല്ലാവരെയും അപ്പൊൾ പിന്നെ ഇവിടെ വീടുകളിലുള്ള ആ ആൾക്കാരായിക്കൊട്ടെ ജോലി ചെയ്യുന്നവരല്ലെങ്കിൽ പിന്നെ കടകളിൽ ജോലി ചെയ്യുന്നവര് യുവാക്കള് ഒക്കെ ഇപ്പൊ പിന്നെ ഒരു സമയത്തല്ലെങ്കിൽ വേറൊരു സമയത്ത് എല്ലാ കായിക മേഖലകളിലും പങ്കെടുക്കുന്നുണ്ടല്ലൊ പിന്നെ ഷട്ടിലായിക്കോട്ടെ അതിനും ഒരുപാട് ഇവിടെ ഡയാന ക്ലബ്ബുണ്ട് ഒരുപാട് ക്ലബ്ബുകളുണ്ട് അതുപോലെ ഇവിടടുത്ത് എൻ്റെ വീടിനടുത്തെന്നെ ഒരു ഡയാന ക്ലബ്ബുണ്ട് അവിടെയൊക്കെ ഷട്ടില് അല്ല ഹോക്കി പിന്നെ അതുപോലെ ഫുട്ബോള് ക്രിക്കറ്റൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ ടറഫുകളുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് കായികമേഖലകളിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ ഇപ്പൊൾ കുടുതലും ചെറിയ ഇപ്പൊൾ കുടുതലും പെൺകുട്ടികള് പൊതുവേ എടുത്ത് പറയേണ്ടതിപ്പോൾ പിന്നെ ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾക്കും കായികമേഖലകളിൽ ഒരുപാട് താൽപ്പര്യം വന്നിട്ടുള്ളൊരു പിന്നെ പിന്നൊരു സമൂഹത്താണ് നമ്മള് ജീവിച്ചോണ്ടിരിക്കുന്നത് പെൺകുട്ടികളെ അധികം ഒന്നിനും വിടുകയോ ഒന്നിനും കായിക മേഖലകളിൽ പോകാൻ വിടുകയോ വീട്ടീന്നാണെങ്കിലും ഒരുപാട് പരിമിതികൾ ഉള്ള ആൾകാ പരിമിതികൾ പെൺകുട്ടികൾ എന്നാൽ ഇന്ന് അതൊന്നും നോക്കാതെ എല്ലാ സൗകര്യം പെൺകുട്ടികൾക്കാണെങ്കിലും നൽകുന്നുണ്ട് അതുപോലെ പെൺകുട്ടികളാ ഒരുപോലെ തന്നെ കായികമേഖലകളിൽ പങ്കെ പങ്കെടുത്തു വരുന്നുണ്ട് സ്ക്കൂളുകളിലായിക്കോട്ടെ ഒരുപാട് ഒരുപാടൊരുപാട് മേഖലകളുണ്ട് അതുപോലെ തന്നെ പിന്നെ ഓട്ട മത്സരായിക്കോട്ടെ അതൊക്കെ ഇതിലൊക്കെ ഉണ്ടല്ലോ